കോവിഡ് നയൻടീനെന്നു പറയുന്നത് വലിയൊരു മഹാമാരി പകർച്ചവ്യാധി ആയിരുന്നു അത് ഒത്തിരീ നിയമങ്ങൾ റെസ്ട്രിക്ഷൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അതിനുവേണ്ടി ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടുണ്ട് നമുക്ക് മാസ്ക് ധരിക്കയും സാനിറ്റൈസ് ചെയ്യുകയും പുറത്ത് പോയിട്ട് വരുമ്പോൾ സാനിറ്റൈസ് ചെയ്യുകയും കുളിക്കുകയും ചെയ്യണം വീടിനുള്ളിൽ പ്രവേശിക്കാൻ പുറമേയുള്ള ആൾക്കാരായിട്ട് ഡയറക്റ്റ് കോൺ സമ്പർക്കമൊന്നും പാടില്ലയെന്നും ഇത് വളരേ സ്പ്രെഡിങ് കപ്പാസിറ്റി കൂടിയൊരു വൈറസായതുകൊണ്ടു തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഡിസ്ട്രിക്റ്റ് റ്റു ഡിസ്ട്രിക്റ്റ് സ്റ്റെയ്റ്റു റ്റു സ്റ്റെയ്റ്റ് ഒക്കെ സ്പെഷ്യൽ പെർമ്മിഷൻ ഉണ്ടായിരുന്നു ഒന്നാന്തരങ്കവും രണ്ടാന്തരങ്കവും മൂന്നാന്തരങ്കവും കാലഘട്ടങ്ങളിലൊക്കെ അതിൻടേതനുസരിച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസുണ്ടായിരുന്നു ഒരു പത്തു പതിനഞ്ച് ആളേ കൂടുതൽ ആൾക്കൂട്ടങ്ങൾ പാടില്ല കല്യാണത്തിന് അൻപത് കല്ല്യാങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും അൻപതിൽ കൂടുതൽ ജനങ്ങൾ പാടില്ലയെന്നുള്ളയൊക്കെയൊരു നിയമങ്ങളുണ്ടായിരുന്നു അതു കൊണ്ടു തന്നെ വളരേ സിവിയറായിട്ടുള്ള സമയത്ത് ഒന്നാം തരംഗ സമയത്തൊക്കെ നമുക്കൊട്ടും തന്നെ വീട്ടിൽത്തന്നെ അടച്ചുപൂട്ടി ഇരിക്കുന്നൊരവസ്ഥ ആയിരുന്നു പുറത്തോട്ടിറങ്ങാനോ നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ ഭക്ഷണം മരുന്ന് കാര്യങ്ങൾക്ക് വളരേ പെർമിഷനോടു കൂടി നമ്മൾ ടൗണിലേക്കു പോകുകയും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ കളക്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ത് പോണെങ്കിലും നമുക്ക് സ്പെഷ്യൽ പെർമിഷനും ചുറ്റോടു ചുറ്റ് പോലീസ് പ്രൊട്ടക്ഷനും നമ്മളവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ സെർച്ചിങ് വളരെ ഹാഡായിട്ടു തന്നെ ഉണ്ടായിരുന്നു പിന്നേ വളരേ ഒരു അടച്ചുപൂട്ടൽ വന്നപ്പോൾ നാട്ടിൻ പുറം കുട്ടികളെല്ലാവരും അല്ലെങ്കിൽ യുവാക്കൾ ഒക്കെ ഒരുമിച്ച് കൂടി കള്ളു കുടിക്കുകയും കളിക്കുകയും വിനോദസഞ്ചാരങ്ങളിളേർപ്പെട് ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സമ്പർക്കം വരികയും പകർച്ചവ്യാധി വരാനുള്ള ചാൻസുണ്ടെന്ന് മുൻകരുതൽ എടുത്ത് അവിടേക്ക് പോലീസ് വാഹനങ്ങളും പിന്നെ ഡ്രോൺ പോലെയുള്ള അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനത്തെ ആൾക്കൂട്ടങ്ങളുണ്ടോയെന്നു നിരീക്ഷിക്കുകയൊക്കെ ചെയ്ത് അതിനെതിരെ നടപടികൾ എടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അതു പോലെ അതു തെറ്റായ പലതീരുമാനങ്ങളിലേക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നു വരാനും സാദ്ധ്യതയുണ്ടായിട്ടുണ്ട് നിരപരാധികൾക്ക് വരെ കിട്ടിയിട്ടുണ്ട് ശിക്ഷകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതു കൊണ്ടു തന്നെ പേടിയാണ് നമുക്ക് പുറത്തോട്ടിറങ്ങാൻ വളരെ പേടിയായിരുന്നു ചുറ്റും രണ്ടു മൂന്ന് വീടല്ലാതെ നമ്മൾ പുറത്തേക്ക് സമ്പർക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരടച്ചു പൂട്ടി ഇരിപ്പു തന്നെ ആയിരുന്നു പിന്നെ വിനോദ ഒരു അത്യാവശ്യഘട്ടത്തിങ്ങളിലേക്ക് നമുക്കൊരു ഡിസ്ട്രിക്റ്റ് റ്റു ഡിസ്ട്രിക്റ്റ് പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പോലീസിൻടേയ്ന്നും അതോറിറ്റീടേയ്ന്നും സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണമായിരുന്നു പിന്നെ വിനോദസഞ്ചാരമേഖല പൂർണ്ണമായിട്ടും തകർന്നു തരിപ്പണമായൊരു കാലഘട്ടമായിരുന്നു ടൂറിന് പോയിട്ട് നമുക്ക് വെറുതെ പോയി അവിടെ കടൽകാറ്റ് കൊള്ളാൻ പോലും നമ്മുടെ ആവശ്യങ്ങൾക്ക് കടയിൽ പോകാൻ പോലും പറ്റാത്തത്ര തിരക്കായിരുന്നു സോ യാത്രകളെയും വിനോദസഞ്ചാരങ്ങളെയും മാത്രമല്ല ജീവിതം തന്നെ ദുഷ്കരമാക്കിയ ഒരു പീരീഡ് ഓഫ് ടൈം ആയിരുന്നു കോവിഡ് നയൻടീൻ്റെ പകർച്ചവ്യാദി എന്ന ടൈമെന്നാണ് എനിക്കു പറയാനുള്ളത്